എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇത്രയും നന്നായിട്ട് ഓരോൺലൈൻ ഷോപ്പിങ്ങിൽ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ട് എനിക്ക് നല്ല രീതിക്ക് അത് കിട്ടുന്നത് നല്ല റിവ്യൂ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഫോർ പോയിൻ്റ് ഫൈവ് റേറ്റിംഗിന് പറ്റിയ ഒരു ഡ്രസ്സ് ആയിരുന്നു എനിക്ക് കിട്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഓരോ ഫീച്ചേഴ്സും ഞാൻ കണ്ട പോലെ തന്നെ ആ ഫോട്ടോയിൽ കണ്ട പോലെ തന്നെയായിരുന്നു എനിക്ക് കിട്ടിട്ടുണ്ടായിരുന്നത് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അനുഭവം ഒണ്ടാവുന്നത് ഇപ്പം ഞാൻ്റോരോ ഫീച്ചേഴ്സിനെ പറ്റിയും അതിൻ്റെ ലെങ്ത് കൃത്യമായിട്ട് എനിക്ക് കിട്ടി അതിൻ്റെ സൈസ് കൃത്യമായിട്ട് എനിക്ക് കിട്ടി ചെറിയ ഒരു മിസ്റ്റേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫോർ പോയിൻ്റ് ഫൈവ് കൊടുക്കാനുള്ള റീസൺന്ന് പറഞ്ഞാൽ അതിന്റൊരു വള്ളിയുടെ ഒരു കേസിൽ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഇടാവുന്നതായതുകൊണ്ട് അതിൽ വലിയ പ്രശ്നമില്ല നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് നല്ല മെറ്റീരിൽ ആ പറഞ്ഞ മെറ്റീരിയലന്നെ കിട്ടുകയും ചെയ്തു നല്ല രസമുണ്ട് ഓരോ ഭാഗത്ത്ന്ന് കാണാൻ വേണ്ടിട്ട് കൃത്യമായിട്ട് എല്ലാ സൈസുകളും കൃത്യവായിട്ടാണ് കിട്ടിട്ടുള്ളത് ആ ലെങ്തിൻ്റെ കാര്യം പക്ക അതുപോലെ അതിന്റെ ഷോള് വന്നിട്ട് നല്ല ഹെവി പ്രിൻ്റഡായിട്ടുള്ള ഷോളാണ് അതും കാണാൻ നല്ല ഭംഗിയുണ്ട് സോ ഞാൻ ഒരു ഫോർ പോയിൻ്റ് ഫൈവ് റേറ്റ്ങ്ങ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിട്ട് മേടിച്ചു നോക്കുക